മൃഗവളർത്തലിൽ സാധാരണയായി വളർത്തുന്ന വ്യത്യസ്ഥതരം മൃഗങ്ങൾ ഇരിക്കെ മൃഗങ്ങൾ പറഞ്ഞാൽ ആട് പിന്നെ കാട കോഴി എന്നിവയൊക്കെ ഞാൻ വളർത്തിയിരുന്ന ആളാണ് ആട് ആട് എന്താച്ചാൽ കുറച്ച് കൂടുതൽ സ്ഥലം വേണം അത്യാവശ്യം ആയിട്ട് നമുക്ക് മേച്ചിൽ പുറങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ആട് വളർത്താൻ ആടുകൾക്ക് നല്ല ആരോഗ്യത്തോട് കൂടി വളരാനും കാര്യങ്ങളും ഒക്കെ കഴിയുള്ളു പക്ഷേ കോഴി കാട എന്നിവക്ക് നല്ലൊരു അത്യാവശ്യം വലിപ്പം ഉള്ളൊരു കൂട് ഉണ്ടായാൽ കോഴി വളർത്തലും കാട വളർത്തലൊക്കെ നടക്കും പിന്നെ കാട മുട്ട ഇടാൻ തുടങ്ങിയാൽ കാടക്ക് ഇടക്ക് വച്ച് നിർത്തുന്ന പരിപാടിയില്ല ദിവസവും മുട്ട കിട്ടും അപ്പോൾ മുട്ടക്ക് നല്ല മാർക്കറ്റിങ്ങും കിട്ടിയാൽ നമുക്ക് കടയിൽ കൊടുത്താൽ അയിറ്റിങ്ങൾക്ക് വേണ്ടുന്ന തീറ്റയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ മുട്ട വിറ്റാൽ തന്നെ കിട്ടും എൻറ്റടുത്ത്ക്ക് കാട ഉണ്ടായിരുന്നു പിന്നെ കോഴി പക്ഷേ കോഴി പുറത്തൊക്കെ വിടുമ്പോൾ ഈ മറ്റസ്സുഖങ്ങളും കാര്യങ്ങളും വരുന്നതൊക്കെ വളരെ കൂട്തലാണ് കോഴി തു തൂക്കോം പിന്നെ മറ്റേ ജീവികൾ അതായത് കീരി കാക്ക എന്നിവ പല കൊണ്ടോകലും കാര്യങ്ങളും ഒക്കെ നമുക്ക് വളരെ നഷ്ടം വരുത്തും നമ്മുടെ കോഴി കുട്ടികളെ ഒക്കെ നമുക്ക് നഷ്ടമാകും പക്ഷേ കാടയാകുമ്പോൾ നമ്മൾ കൂട്ടിൽ വളർത്തുമ്പോൾ ഈ കുറച്ച് തീറ്റയും കാര്യങ്ങളും കൊണ്ടോന്ന് കൊടുത്താൽ അവറ്റ്ങ്ങളങ്ങനെ വളർന്നോളും